ഹലോ അനു ടീച്ചറല്ലേ ഹലോ അനു ടീച്ചറല്ലേ ആ അനു ടീച്ചറ് വീട്ടിലെത്തിയോ ആ ടീച്ചറെ അടുത്ത ആഴ്ച്ച നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ ഹലോ അടുത്തയാഴ്ച്ച നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ അപ്പോൾ നമ്മൾ എന്നായൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത് അതിന് ആ നമുക്ക് ആകുന്നത് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആകുന്ന ഒരു പതാക ഉയർത്തലും പിന്നെ അതുകഴിഞ്ഞ് ഗ്രൗണ്ടിൽക്കൂടെ ഒരു പിള്ളേരുടെ പരേഡ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു അപ്പം ടീച്ചറെന്നാ ഓർക്കുന്നത് ആം ചെയ്യാം അതന്ന് ചെയ്തേക്കാം ആ അതെ ആ അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ ക്ലാസ് കഴിയുമ്പോൾ അതങ്ങ് പിള്ളേരോട് മൊത്തത്തിലങ്ങ് പറയാം

സ്കൂൾ ഗ്രൗണ്ടോ അല്ലങ്കിൽ നമുക്ക് സിറ്റീക്കൂടെ അങ്ങ് പോയാലോ ടീച്ചർ എന്ത് എന്ത് ആ അത് ശരിയാ നമുക്ക് പിള്ളേരെ പരിപാടിയൊക്കെ പോയ പ്രോഗ്രാമൊക്കെ പോലെ ചെയ്യാം വെക്കാം ആ വിളിച്ചേക്കാം നമുക്ക് എസ് ഐയെ വിളിച്ചേക്കാം ആ അത് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരുടെ ഒരു പരിപാടിയൊക്കെ വച്ച് നാളെ തൊട്ട് ആ അത് ആ അത് നമുക്ക് തലേദിവസം വാങ്ങിച്ച് വച്ചേക്കാം മ്മ് അതിന് ശേഷം നമുക്ക് പിള്ളേരുടെ അടുത്ത് പ്രോഗ്രാമ് വെച്ചത് നാളെതൊട്ട് പ്രാക്റ്റീസ് തുടങ്ങാം ആ അതും ചെയ്യാം ആലോചിക്കാം അതിനെപ്പറ്റി ആ പിന്നെ കൾച്ചർ പ്രോഗ്രാമൊക്കെ പോലെ വെച്ചിട്ട് പിള്ളേർ പിള്ളേരുടെ

ആ അതെല്ലാം കൾച്ചർ പ്രോഗ്രാമിനിടയ്ക്ക് അത് നമുക്ക് നാളെ തൊട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വയ്ക്കാം പിള്ളേരോടെയ് ആ എല്ലാം ചെയ്യാം അത് കുഴപ്പം ഒന്നും ഇല്ല നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കാം ആ

ആ നമുക്ക് പഞ്ചായത്ത് പ്രസിഡെൻറ്റിനേം എസ് ഐ സാറിനെയും വിളിക്കാം

ഉദ്ഘാടനം ഹെഡ് മാസ്റ്ററ് തന്നെ ആയിക്കോട്ടെ

ആ പിന്നെ പിള്ളേർക്കൊരു ഡ്രസ്സ് കോഡ് വല്ലതും വച്ചാലോ സീനിയർ പിള്ളേർക്ക്

ആ നമുക്ക് ചെയ്യാം ടീച്ചറുണ്ടല്ലോ

ഓക്കെ ശരി